ഞാനീ അടുത്തിടെ എടുത്ത യാത്ര എന്ന് പറയുന്നത് കണ്ണൂരേക്കായിരുന്നു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അതില് അവരുടെ ഒരു വണ്ടി സർവീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി സർവീസ് ആയിരുന്നു നല്ല കേറിങ് ആയിരുന്നു ഡ്രൈവിംഗ് കെയർഫുള്ളി ഡ്രൈവിങ്ങായിരുന്നു ടൈമിംഗ് കറക്ട് ടൈമിംഗ് കാര്യങ്ങള് ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഏജൻസി എന്നു പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോൾ നമ്മള് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും കറക്ട് കാര്യങ്ങള് നമുക്ക് എവിടെയൊക്കെയാണോ ഒരു റൂട്ട് പ്ളാൻ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനനുസരിച്ചു തന്നെയാണ് നമ്മളെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യിച്ചതും പിന്നെ നമ്മളെ എല്ലാം ഒരു സ്ഥലംപോലും മിസ്സ് ചെയ്യാതെ ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളും അവര് കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇനിയും നമുക്ക് സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ട്രാവല്ലിംഗ് നടത്തുകയാണെങ്കിൽ ഒരു യാത്ര ഉണ്ടെങ്കിൽ ഈ ഒരു ഏജൻസിയായിട്ട് മുന്നോട്ട് പോവാൻ ഞങ്ങൾക്കൊരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതേ ഒരു യാത്ര ഞങ്ങളിപ്പോ നെക്സ്റ്റ് വീക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഇവരുടെ സർവീസ് ഞങ്ങൾ തുടർന്ന് ആഗ്രഹിക്കുകയാണ്